ചിത്രങ്ങള് ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാറില്ല ഞാൻ നോർമൽ അതേപോലുള്ള പിക്ചേഴ്സ് തന്നെ ആണ് എനിക്ക് നാച്ചുറൽ എഫക്റ്റാണ് എനിക്കിഷ്ടം പിന്നെ എന്നുവച്ചാല് ഇത് എന്തേലും ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കില് അങ്ങനെ എഡിറ്റ് ചെയ്യാറുണ്ട് അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറെന്നു പറഞ്ഞാല് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോള് പിക്സാര്ട്ടോ അല്ലെങ്കില് ക്യാൻവാ അതൊക്കെ പോലെയുള്ള ആപ്പുകളൊക്കെ ക്യാൻവ അല്ല സോറി പിക്സാര്ട്ടോ അങ്ങനത്തെ ഇതൊക്കെ കൊളാഷ് ഉണ്ടാക്കാന് അതില് എഡിറ്റിങ്ങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിത്രങ്ങള് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നേന്നു പറഞ്ഞാൽ എന്താ പറയുന്നേ പിന്നേന്നു പറഞ്ഞാല് അതായതിപ്പോള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻവയില് അധികം ഞാനങ്ങനൊന്നും ചെയ്യാറില്ല പിക്സാർട്ടിലാണ് ഞാൻ പറഞ്ഞപോലെ മൊത്തത്തില് ഞാനിങ്ങനെ എഡിറ്റിങ് കാര്യങ്ങള് ചെയ്യാറുള്ളൂ എന്നാലും നമുക്കിതില് ആവശ്യങ്ങളൊക്കെ വരുമ്പോള് പിക്സാർട്ടില് എന്തേലുമൊക്കെ ചെയ്ത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകാനായിട്ടു ശ്രമിക്കാറുണ്ട് പിന്നെ അങ്ങനൊക്കെയാണ് ചിത്രങ്ങള് എഡിറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ ഒത്തിരി എഡിറ്റ് ചെയ്യാറില്ല എന്നാലും എഡിറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കില് ഇതുപോലെയുള്ള കൊളാഷ് ഉണ്ടാക്കാനോ അല്ലെങ്കില് വേറെ എന്തേലും ഫോട്ടോസ് വച്ചു വേറെ എന്തേലും എഴുതാനോ ഏന്തേലും ബേത്ത് ഡേ വിഷോ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻവയും പിക്സാർട്ട് പോലത്തെ ആപ്പുകളാണ്